കോവിഡ് കാലത്ത് മൊബൈൽ ഫോണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് കൂടുതലായിട്ട് പടങ്ങൾ പഠനങ്ങൾ നടന്നത് എന്താ പറയുക കൊറോണ എൻ്റെ കൊറോൻഡ് തുടങ്ങിയെപ്പിന്നെ കുറച്ച് പകുതി ആയപ്പം ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലാണ് സ്റ്റാർട്ട് ചെയ്ത് ക്ലാസ്സുകൾ മാത്രമല്ല നമുക്ക് വർക്കുകളും കാര്യങ്ങളും ഒക്കെ പിന്നെ ന്യൂസുകൾ ന്യൂസുകളൊക്കെ നമ്മളറിയാൻ തുടങ്ങി കൊറോണ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിയാൻ തുടങ്ങി അതൊക്കെ ഫോ മൊബൈൽ ഫോണിലൂടെയാണ് പിന്നെ കൂടുതൽ കുട്ടികൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ നമുക്ക് സുലഭമായിട്ടുള്ളത് തുടങ്ങി കോവിഡിന് ശേഷം കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് തന്നെയാണ് കുട്ടികളൊക്കെ അതിന് കൊണ്ടാണ് ഈ പഠിപ്പും കുറേ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ രണ്ടു മൂന്നുള്ള രണ്ട് വർഷമൊക്കെ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിലൂടെ തന്നെ വിദ്യാഭ്യാസം നേടിയെടുക്കാനും കഴിഞ്ഞു ഓൺലൈൻ ക്ലാസ്സിലൂടെ അതൊക്കെ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ദോഷങ്ങളെന്ന് പറയുന്നത് ഈ കുറേ ഗെയിംസ് വന്നിട്ട് കുറേ പേർക്ക് പ്രശ്നങ്ങളുണ്ടായി ഡെത്ത് വരെ സംഭവിച്ചു ഇതിനീ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് ചിലർക്ക് ഗെയിംസിന് അഡിക്റ്റായിപ്പോയി ഗെയിംസിലൂടെപ്പോയി ഫോണിൻ്റെ വഴിയേപ്പോയിട്ട് അഡിക്റ്റായിട്ട് അങ്ങനെ അപകടങ്ങൾ ഉണ്ടായീന്